ഞാൻ ഈ അപ്പിൽ നിന്നൊരു ഹെഡ്സെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു വളരേ വിലക്കൊറവിൻറെ ഒരു ഹെഡ്സെറ്റ് ആണ് ഞാന് ഓർഡർ ചെയ്തത് ഒരു മൂന്നൂറ് രൂപയുടെ ഹെഡ്സെറ്റ് ആണ് ഞാൻ ഇതിൽ നിന്ന് ഓർഡർ ചെയ്തത് അത് ഓർഡർ ചെയ്തപ്പോൾ ഞാന് അധികം കാലമൊന്നും നില്ക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈയൊരു ഹെഡ്സെറ്റ് ഓർഡർ ചെയ്തത് കാരണം മൂന്നൂറ് രൂപയുടെയാണല്ലോ വിലക്കുറവാണല്ലോ അതുകൊണ്ട് അധികം നാളൊന്നും നില്ക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഹെഡ്സെറ്റ് ഓർഡർ ചെയ്യുന്നത് പക്ഷേ ഇപ്പം ഇതൊരു മൂന്ന് മാസത്തോളമായിട്ട് ഞാൻ ഈ ഹെഡ്സെറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത് വിലക്കുറവാണെങ്കിലും നല്ല രീതിയിൽ നല്ല സൗണ്ട് ക്വാളിറ്റിയെല്ലാമുള്ള നല്ല ബാസ് എല്ലാമുള്ള നല്ല ഹെഡ്സെറ്റ് ആണ് പിന്നെ എനിക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ആണെങ്കിലും ഞാൻ ഈ ഹെഡ്സെറ്റ് യൂസ് ചെയ്യാറുണ്ട് കാറിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സേഫ് ആയിട്ട് നമുക്ക് ഈ ഹെഡ്സെറ്റ് വഴി എന്തെങ്കിലും കോൾ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും ഓപ്പോസിറ്റ് നിൽക്കുന്നവര്ക്ക് നല്ല രീതിയിൽ തന്നെ നമുക്കത് കേൾക്കാനൊക്കെ പറ്റും അതുപോലെ തന്നെ പുറത്തുള്ള സൗണ്ട് ഡിസ്റ്റേബന്സ് ഒക്കെ ഒരു പരിധി വരെ നമുക്ക് ഈ ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നതിലൂടെ കുറയ്ക്കാനായിട്ട് സാധിക്കും നല്ല ഹെഡ്സെറ്റ് ആണ് എന്റെ അഭിപ്രായത്തിൽ ഇതൊരു നൈസ് പ്രൊഡക്റ്റ് ആണ് ഞാനിത് മറ്റുള്ളവര്ക്ക് റെക്കമെൻഡ് ചെയ്യും